പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും നിയമവ്യവസ്ഥയിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിന് എന്നതിന് എന്നതിനെ കുറിച്ച് പറയുക ആണെങ്കിൽ നമുക്ക് അറിയാം ഇപ്പം സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും പരിഗണിക്കപ്പെടുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് നിയമങ്ങളും ബാക്കിയുള്ള അത് റിസർവേഷൻസെല്ലാം കൊടുക്കണം പക്ഷേ ഒരു സംശയം മാത്രം ബാക്കി ഈ സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടു വരുമ്പോൾ പൗരന്മാർ പിന്നോക്കം പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടുന്ന നിയമങ്ങൾ ഒന്നും നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉള്ള ഉറപ്പുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരു കൂട്ടരാണ് പൗരന്മാർ പൗരന്മാരുടെ പൗരന്മാരുടെ ഒരു പുരോഗിതിക്കായി നമുക്ക് ധാരാളം നിയമങ്ങൾ നിലവിൽ കൊണ്ടുവരാനാവും അതുപോലെ തന്നെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരുന്ന കുറ്റ കൃത്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാം വളരെ അധികം കുറ്റകൃത്യങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ദിനംപ്രതി വളരെ അധികം കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട് ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ മാനസിക നില ശരിയല്ല എന്നതാണ് കാര്യം കാര്യം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഒരു മാനസിക സിറ്റുവേഷനാണ് അല്ലെങ്കിൽ മാനസിക സാഹചര്യമാണ് അവയിൽ നിന്ന് എല്ലാം ഒഴിവായാൽ നമുക്ക് നല്ലൊരു നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാനാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഒക്കെ പൗരന്മാരായ നാം വളരെ അധികം ശ്രദ്ധ കൊടുക്കേണ്ടി ഇരിക്കുന്നു